ഫോണിന് നെഗറ്റീവ് റീവ്യൂന്ന് പറയാനുള്ളത് എം ഐയുടെതാണെന്നുള്ള ഒരു കുഴപ്പം മാത്രമേ ഉള്ളു പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ്സ് വരില്ല അതുപോലെതന്നെ അപ്ഡേറ്റ്സിനു കുറെ ബഗ്ഗുകാളും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ ഫോണ് കുറച്ചുകാലം കഴിഞ്ഞാൽ ലാഗ് ആവും അതായത് ഒരു സ്റ്റക്ക് ആയ അവസ്ഥ ലൈക് പിന്നെ സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ സ്ക്രീൻ ഓട്ടോമാറ്റിക്കായിട്ട് ടച്ച് ആവുക ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രീൻ വർക്ക് ചെയ്തോണ്ടിരിക്കും അപ്പോൾ നമ്മൾ ലോക്ക് ചെയ്ത് ആൺലോക്ക് ചെയ്യേണ്ടിവരും അങ്ങനെ ഒരു ഇഷ്യു ആണ് എം ഐയുടെ സോഫ്റ്റ്വെയറിന് പൊതുവെ വരുന്നത് അതീ ഫോണിനും വരുന്നുണ്ട് പിന്നെ അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത് നോക്കി ചെയ്തിട്ടില്ലെങ്കിൽ പണി കിട്ടും അപ്ഡേറ്റ്സ് കുറെ ബഗ്ഗ് ഉള്ള അപ്ഡേറ്റ്സ് ആയിരിക്കും ഓൾമോസ്റ്റ് വരുന്നത് അപ്പോൾ ആ ബഗ്ഗും നമുക്ക് കിട്ടും പിന്നെ ചിലപ്പോൾ ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും